ഞങ്ങളുടെ പ്രദേശത്തെ ആശുപത്രിയിൽ സി ടി സ്കാൻ അതുപോലെ എക്സ് റേ എന്നീ സേവനങ്ങളൊക്കെ ലഭ്യമാണ് പക്ഷേ ഇത് ബുക്ക് ചെയ്താൽ ആറുമാസത്തിൻ്റെ ഉള്ളിലൊക്കെയായിട്ടാണ് കിട്ടല് കിട്ടാറുള്ളത് എന്നാൽ എമർജൻസി കേസുകളിൽ അത്യാഹിത കേസുകളിലൊക്കെ ഞങ്ങൾ മറ്റാശുപത്രികളെയോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരാറുണ്ട് പിന്നെ എം ആർ ഐ സ്കാൻ ഞങ്ങളുടെ പ്രദേശത്തെ ജില്ലാശുപത്രിയിലൊന്നും ഇപ്പം ലഭ്യമല്ല അത് അത്യാവശ്യം വന്നാൽ ഞങ്ങൾ പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ പോയിട്ടാണ് എടുക്കാറുള്ളത് പിന്നെ എന്താ രക്ത പരിശോധനയും മൂത്ര പരിശോധനയൊക്കെ ഞങ്ങളുടാശുപത്രിയിൽ ആദ്യമേയുണ്ട് പിന്നെ ഇടക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഹെൽത്ത് സെൻറ്ററുകളിലും പ്രഷർ ഷുഗർ അതുപോലെ കോളസ്ട്രോൾ എന്നിവയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പരിശോധന ഉണ്ടാകാറുണ്ട് ഹെൽത്ത് സെൻറ്ററിലും ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഞമ്മളെ ഗ്രാമത്തിൽ കടകളിലോ അങ്ങാടികളിലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ദിവസം വെച്ചിട്ട് അവിടെയൊക്കെ അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് ഇടക്ക് ചെക്കപ്പ് നടത്താറുണ്ട് ഇടക്കല്ല അവിടെ വരുമ്പോൾ ഒക്കെ അവിടെ പോയിട്ടങ്ങനെ ചെക്കപ്പ് നടത്തും മുൻപ് കാലങ്ങളിലൊന്നും ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അന്നൊക്കെ പിന്നെ എത്ര ദൂരത്താണെങ്കിലും പിന്നെ അവിടേക്ക് പോകുമായിരുന്നു ഹോസ്പിറ്റൽ എത്ര ദൂരെയാണെങ്കിലും അന്നവിടെയൊക്കെ പോകുമായിരുന്നു